ഇപ്പോൾ അങ്ങനെ വിഭവങ്ങളുടെ ലഭ്യതക്കുറവും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ചികിത്സ ചിലവൊന്നും നമ്മളങ്ങനെ കൂടുതലായിട്ട് നോക്കുന്നില്ല കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഒക്കെ എല്ലായിടത്തും തന്നെ ഉള്ളതു കൊണ്ട് തന്നെ നമുക്ക് ചികിത്സ ചിലവൊക്കെ വലിയ കാര്യമായിട്ട് വരുന്നില്ല എന്നാലും ചെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ വല്ല കൈ ഒടിയുകയോ കാൽ ഒടിയുകയോ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ അതായത് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ആണെങ്കിലും അവിടെ നമ്മളിപ്പോൾ പോകുകയാണ് ഇപ്പോൾ കൈയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാലിൽ ഇടാനുള്ള കമ്പിയോ കാര്യങ്ങളോ അതൊന്നും നമുക്ക് അവിടുന്ന് കിട്ടിക്കോണം എന്നില്ല നമ്മളതൊക്കെ പുറത്ത് പോയി മേടിച്ച് ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് വേണം ഇവിടെ പോയിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പിന്നെ ക്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒ പി ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ എപ്പോഴും തന്നെ ക്യൂ ആയിരിക്കും കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നതോട് കൂടി ആൾക്കാർ കൂടുതൽ ആൾക്കാർ ചുരുങ്ങിയ ചിലവിൽ രോഗം ഇതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ തന്നെ വരുന്നുണ്ട് ക്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരിക്കും എല്ലായ്പ്പോഴും അപ്പോൾ അതൊരു ഞാൻ അനുഭവിച്ച ഒരു കാര്യം തന്നെയാണ് ചികിത്സ ചിലവ് എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സാധനങ്ങൾ ഒക്കെ ചിലത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ പുറത്ത് പോയി വാങ്ങാറാണ് പതിവ് അപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്